എനിക്ക് യാത്ര പോകുന്നത് ഏറ്റവും ഇഷ്ടം ബസ്സിൽ പോവുന്നതാണ് ബസ്സിലാവുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അവിടെ കേറിയപ്പോൾ കോഴിക്കോട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറേ പാടം അങ്ങാടികൾ കാണാം വേറെ കുറേ വാഹനങ്ങൾ കാണാം ഇങ്ങനെ കോഴിക്കോടിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും പിന്നെ ഒരുപാട് യാത്രക്കാർ കയറി ഇറങ്ങുന്നതും അതും കാണാം അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൽ അതിൽനിന്ന് പഠിക്കാനുണ്ട് നമുക്ക് കാരണം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദൂരെ പോവുമ്പോൾ ഓരോ കാഴ്ചകൾ കണ്ട് അതിൽനിന്ന് ഓരോന്ന് കണ്ട് മനസ്സിലാക്കാനും കഴിയും അതേമാതിരിത്തന്നെ യാത്ര ചെയ്യാനും സുഖമാണ് സീറ്റ് കിട്ടണമെങ്കിൽ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ബസ്സിൽ നിന്ന് പോകുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം ഇരുന്ന് പോകുന്നതിൻ്റെ സുഖവും നിന്ന് പോകുന്ന ബുദ്ധിമുട്ടൊക്കെ നല്ല അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ബസ്സിൽനിന്നൊന്നും അത്ര ഒന്നും എന്താ യാത്ര അങ്ങനെ എത്ര ദൂരെ വേണമെങ്കിലും പോവാൻ ഇഷ്ടമാണ് കാരണം കുറേ ദൂരങ്ങൾ കാണാൻ കഴിയും ബസ്സിലാവുമ്പോൾ അങ്ങാടികൾ കാണാം അതെക്കെയാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാരെ അങ്ങാടിയിൽ വെച്ചിട്ടും ഇപ്പോൾ പോകുന്ന വഴിക്ക് മീൻ പച്ചമീൻ വിൽക്കുന്നത് കാണാം അങ്ങനെയുള്ള ഓരോ കടകൾ കാണാം തുണിക്കടകൾ സ്വർണ്ണ ജ്വല്ലറികൾ കാണാം പിന്നെ ഹോട്ടലുകൾ കാണും അതൊക്കെ ഇങ്ങനെ കാണുമ്പം നല്ല രസമാണ് രാത്രിയായാൽ പിന്നെ ഓരോ അങ്ങാടിയിലെത്തുമ്പോൾ നല്ല രസമുള്ള ലൈറ്റുകളും നല്ല ആ ലൈറ്റിൻ്റെ ഇടയിലുള്ള ഓരോ ടെക്സ്റ്റയിൽസുകളിലെ ഉടുപ്പുകളൊക്കെ കാണാം നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് പിന്നീട് ഇങ്ങനെ ഓരോ യാത്രയിൽ ഓരോ യാത്ര ഓരോ രീതിയിലാണ് ട്രെയിനിൽ പോവുന്നത് ഇഷ്ടമാണ് ട്രെയിനിലാവുമ്പോൾ കുറേ പാടങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നത് കാണാം മലകൾ കാണാം കാടുകളുണ്ടാവും യാത്ര ട്രെയിനിൽ യാത്ര പോവുമ്പോൾ വല്ലാതെ അങ്ങാടികളൊന്നും കാണില്ല കൂടുതൽ കാട് പാടം മലകൾ അങ്ങനെയുള്ളതൊക്കെയാണ് കാണാൻ കഴിയുക

അതാണ് ഒന്നുംകൂടി രാത്രി ഒക്കെ ട്രയിനിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇരിക്കാനും യാത്ര ചെയ്യാനും സുഖമാണ് കാരണം കിടക്കണം എന്നുണ്ടെങ്കിൽ കിടക്കാം ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഇരിക്കാം നിൽക്കാം നല്ല കാറ്റും ഇതൊക്കെ കിട്ടും പോവുമ്പോൾ അവിടെനിന്ന് പോയി നമ്മൾ രാജ റാണിയിൽനിന്ന് ട്രെയിനിലൊക്കെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ രാത്രിയാണ് നല്ലത് ഓരോ ടൗണിലേക്കെത്തുമ്പം അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളും പിന്നെ മലകൾ കാടുകൾ ഇരുട്ട് ആവുമ്പോൾ ആ ഓരോ വീടിൻ്റെ ഓരോ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ അതിൽകൂടെ അങ്ങനെ കാണാൻ നല്ല രസമാണ് അങ്ങനെ പിന്നെ ഉള്ളതെന്താ ചോദിച്ചാൽ സ്വന്തം വാഹനത്തിൽ സ്കൂട്ടിയിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ ബൈക്കിന്മേലൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു നിയന്ത്രണത്തിൽ ഇങ്ങനെ പോകാം നല്ല സുഖമാണ് കാരണം ഏത് വഴിക്ക് പോവുകയാണെങ്കിലും നമുക്ക് എല്ലാ വാഹനങ്ങളുമായിട്ട് ടച്ച് കണ്ട് പോവാം ആ സൈഡ് കൊടുത്ത് ഓരോ സ്ഥലത്തുകൂടെ ഇങ്ങനെ പോവുമ്പം ഒരു പ്രത്യേക രസമാണ് ചുരം കയറുകയാണ് എന്നുണ്ടെങ്കിൽ ബൈക്കിന് ചുരമൊക്കെ കയറുകയാണ് എങ്കിൽ നല്ല രസമാണ് കാരണം നല്ല കാഴ്ചകൾ കിട്ടും അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് ഓരോ സലത്തെത്തുമ്പോൾ നിർത്തിയിട്ട് അവിടെനിന്ന് ഓരോ കാഴ്ചകൾ കാണും ഇപ്പോൾ നാടുകാണി ചുരത്തിൽക്കൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കുറേ ഏരിയകളുണ്ട് വയനാട് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ വണ്ടികൾ ഇങ്ങനെ ഓരോ പാർക്കിങ് സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാണൽ ബസ്സിനു പോയിട്ട് പോവുകയാണെങ്കിൽ രസമാണ് കാരണം ബസ്സിൽ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ആ സീനറിയും അപ്പോൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ ഓരോന്ന് ആസ്വദിച്ച് പോകുന്നത് ഏറ്റവും ഇഷ്ടമാണ് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ് ദൂരയാത്രയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയും ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും പോവുമ്പോൾ അത് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ ക്ഷീണം ഉണ്ടാവും അത് പിന്നെ സാധാരണ ഉള്ളതാണ് അങ്ങനെ യാത്ര അങ്ങനെ പോവാം അതൊരു ഇഷ്ടമാണ് സ്വന്തം വാഹനത്തിൽ പോവുന്നതും ഇഷ്ടമാണ് അല്ലാതെ അങ്ങനെ ബസ്സിലായാലും ട്രെയിനിലായാലൊക്കെ പോകുന്നത് ഇഷ്ടമാണ് യാത്രനോട് നല്ല താല്പര്യള്ള ഒരു ആളാണ് അങ്ങനെ ഓരോന്നും ഓരോ സലത്തൊക്കെ പോവുന്നത് വളരെ ഇഷ്ടമാണ്